ആ മാഡം ഈ കേരളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ് ഈ അത്ര ഫേമസാണോ ഉത്സവങ്ങളൊക്കെ അത്ര ഫേമസാണോ ആ ഓക്കെ

ആ അവിടെ ആപ്പം അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടാകുമോ ആ ഓക്കെ മാഡം ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ മാഡം താങ്ക് യു